ഗ്രീൻ ഹിൽസ് പബ്ലിക് സ്കൂൾ ആ ഓക്കെ ഓക്കെ സാറെ ഞാനേ എൻ്റെ രണ്ട് കുട്ടികളെ അവിടെ ചേർക്കുന്നതിന് വേണ്ടീട്ടായിരുന്നെ വിളിക്കുന്നത് ഒരാൾ എൽ കെ ജിലും ഒരാൾ രണ്ടാം ക്ലാസ്സിലുമാണ് അത് അല്ല അത് എന്താന്നുവെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂത്തയാളെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇളയാളെ ആണ് ചേർക്കാത്തത് ആ അത് രണ്ടു പേരേം കൂടെ ഒരു സ്കൂൾ തന്നെ ആക്കാൻ വേണ്ടീട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്

ഓക്കെ ആധാർ കാർഡുണ്ട് ആ ഓക്കെ

അഡിഷണൽ ആണല്ലേ

അപ്പോൾ ഇവർക്ക് ഈ സ്ക്കൂളിലേക്ക് വരാനുള്ള സ്കൂൾ ബസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യോ അഡിഷണൽ അപ്പോൾ ഈ പി ടി എ ഫണ്ട് വരില്ലല്ലേ ആനിവേഴ്സറി ഞങ്ങൾ കാട്ടിക്കുളം ആ ഓക്കെ അപ്പോൾ നാളെ വന്നുകഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റോ സാറെ

ആ ഇതിനൊക്കെ നമ്മൾ എന്തായാലും അഡിഷണൽ പേയ്മെന്റ് ചെയ്യണമല്ലേ അല്ല ഇപ്പോൾ ഈ എൽ കെ ജി പഠിക്കുന്ന കുട്ടിക്ക് അൻപതിനായിരം രൂപയാണല്ലോ നമുക്കവിടെ ഫീ വരുന്നത് അപ്പോൾ അത് എന്തിനുള്ളതാണ് ഇത്രേം ആൾറെഡി നമുക്കിപ്പോൾ

ആ ഓക്കെ അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടീട്ടായിരികുവല്ലേ ആ ഓക്കെ സാർ

ആ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ നാളെ വരാം സർ ആ ഓക്കെ ഓക്കെ എന്നാൽ നാളെ വരാം